ഞാൻ ബൈക്കിൽ യാത്ര സന്ദർശിച്ച ചില സ്ഥലങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ ആദ്യമാായി ഞാൻ ബൈക്കിൽ ദീർഘ ദൂരം യാത്ര ചെയ്ത് സന്ദർശിക്കുന്ന സ്ഥലം മൂന്നാറാണ് മൂന്നാർ അതിൽ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വാൽപ്പാറ സന്ദർശിച്ചിട്ടുണ്ട് ബൈക്കിൽ അപ്പോൾ ഈ രണ്ട് യാത്രകൾ എനിക്ക് വളരെ അധികം സന്തോഷവും ആനന്ദവും തോന്നാൻ കാരണം എന്ന് വച്ച് കഴിഞ്ഞാൽ വളരെ അധികം പ്രകൃതി രമണീയമായ പാതയിലൂടെ ആണ് നമ്മൾ ബൈക്ക് ഓടിച്ച് പോവുന്നത് അപ്പോൾ അത് ഭയങ്കര ഒരു രസമുള്ള അനുഭവമാണ് ബൈക്കിൽ നല്ല കാറ്റൊക്കെ നല്ല തണുത്ത കാറ്റൊക്കെ കൊണ്ട് നമ്മൾ ആ ആട് നല്ല വളരെ നല്ല റോഡുകൾ ഒക്കെയാണ് ഈ സ്ഥലങ്ങളിലേക്ക് പോവുന്ന റോഡുകൾ അപ്പോൾ ഈ റോഡുകളിലൂടെ നല്ല യാത്ര ചെയ്ത് മല മുകളിലിലെത്തുന്നതും അവിടെ ഉള്ള പ്രകൃതി രമണീയമായ കാഴ്ചകൾ കാണുന്നതും വളരെ അധികം ആനന്ദം തരുന്ന ഒരു നമുക്ക് ഒരു ചെയ്യാൻ പറ്റിയ ഒരു സന്ദർശനം ആണ് പിന്നെ എനിക്ക് ഇനി ആഗ്രഹമുള്ള ഇന്ത്യയിലെ ചില സ്ഥലങ്ങളെ പറ്റി ചോദിക്കുമ്പോൾ ആദ്യമായി ആഗ്രഹം സ്ഥലങ്ങൾ എനിക്ക് ലഡാക്ക് ഒന്നു ബൈക്കിൽ യാത്ര ചെയ്ത് സന്ദർശിച്ചാൽ കൊള്ളാം എന്ന് നല്ല ആഗ്രഹമുണ്ട് ഇതേപോലെ തന്നെ വളരെ അധികം പ്രകൃതി രമണീയമായ സ്ഥലമാണ് പക്ഷെ കുറച്ച് കൂടി കഠിനമായ ഒരു യാത്രയാണ് നല്ലത് ഞാൻ കേട്ട് കേട്ടറിവുള്ളത് അതായത് റോഡുകൾ കുറച്ചു കൂടി കുറച്ച് കൂടി ബുദ്ധിമുട്ടുള്ള റോഡുകളാണ് ഓ അങ്ങോട്ട് പോവുന്ന റോഡുകൾ പിന്നെ മണ്ണിടിച്ചിൽ സാധ്യത വളരെ അധികം ഉള്ള സ്ഥലങ്ങൾ ഒക്കെ ഉണ്ട് പക്ഷെ എന്നാലും ആ കാഴ്ചകൾ വളരെ അധികം മനോഹരവും സുന്ദരവും ആയതാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് അപ്പോൾ എനിക്ക് തീർച്ചയായും ബൈക്ക് ഓടിച്ച് ലഡാക്ക് സന്ദർശിച്ചാൽ കൊള്ളാമെന്നുണ്ട് അപ്പോൾ അത് എനിക്ക് വളരെ അധികം ആഗ്രഹവും എൻ്റെ സ്വപ്നവുമായിട്ടുള്ള യാത്രയാണ് വേറെ ഒരു ആൾക്ക് ഞാൻ ഒരു സ്ഥലം സന്ദർശിക്കാൻ ഉണ്ടെങ്കിൽ ഞാൻ പറയുക ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ആ യാത്ര ചെയ്യുന്ന സുഖം തന്നെ ഒരു പറഞ്ഞ് അറിയിക്കാൻ ആവാത്ത ഒരു അനുഭവമാണ് അപ്പോൾ അടുത്തുള്ള പുതിയതായി ഓടിച്ച് തുടങ്ങുന്ന ആൾക്കാരാണെങ്കിൽ അടുത്തുള്ള ചില സ്ഥലങ്ങളിലേക്ക് ആദ്യം യാത്ര ചെയ്യുക അടുത്തുള്ള മലകളിലേക്കോ അങ്ങനത്തെ മല പ്രദേശങ്ങളിൽ ഒക്കെ യാത്ര ചെയ്യുക കടലിനടുത്തൂടെയുള്ള വഴികളിലൂടെ ഉണ്ടെങ്കിൽ അങ്ങനെ യാത്ര ചെയ്യുക അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പോയതായിട്ടുള്ള മൂന്നാർ വാൽപ്പാറ വളരെ നല്ല ഒരു അനുഭവമായിരിക്കും കേരളത്തിൽ ഉള്ള ആൾക്കാർക്ക് കൊടുക്കുക അതായത് അടുത്തുള്ള സ്ഥലമാണ് കാര്യം അത് മെയിൻ ആയിട്ടുള്ള ഒരു സ്ഥലം ആണ് പിന്നെ തീർച്ചയായും എൻ്റെ എനിക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹം ഉള്ള സ്ഥലമായ ലഡാക്ക് ഞാൻ ആൾക്കാറോട് സന്ദർശിക്കാൻ വളരെ അധികം നിർദ്ദേശിക്കും അതായത് പ്രകൃതി രമണീയമായ കാഴ്ചകൾ കണ്ട് നല്ല ആസ്വാദനം കൊണ്ട് നല്ല സന്തോഷമായിട്ട് വരാൻ പറ്റിയ ഒരു അനുഭവമായിരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നു